എൻ്റെ പ്രദേശത്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എൻ്റെ പ്രദേശത്തും സമീപത്തും ആയിട്ട് ഒരുപാടു ഹോസ്പിറ്റലുകളും അതായത് സർക്കാർ ആരോഗ്യകേന്ദ്രങ്ങളുണ്ട് അവയെളുപ്പത്തിലെത്താവുന്നതാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുതന്നെ അതായത് വീടിൻ്റെ അടുത്ത് കുറച്ച് അതായത് മെഡിക്കൽ കോളേജൊക്കെ നമ്മുടെ വീടിൻ്റെ കുറച്ചങ്ങുപോയാൽ മതി ഒരു പതിനഞ്ച് കിലോ മീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജ് കാണാം പിന്നെ തൊട്ടടുത്താണെങ്കിൽ നമുക്ക് ഹെൽത്ത് സെൻറ്റർ അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടു തന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അതായത് നമുക്ക് റോഡ് സൗകര്യങ്ങൾ എല്ലാ എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് അതായത് കോഴിക്കോട് നമുക്ക് പറയാം വലിയ ഒരു ബിഗ് ടൗണാണല്ലോ അപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല റോഡ് കാര്യങ്ങളൊക്കെയാണ് അതായത് എൻറെ വീട്ടിൻറെ മുറ്റത്തു കൂടി തന്നെയാണ് മെയിൻ റോഡുള്ളത് അപ്പോൾ അതുകൊണ്ടു തന്നെ നമുക്കത് അസുഖം അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ട് തന്നെ പിന്നെ എൻറെ പ്രദേശ സമീപത്തായിട്ട് ആശുപത്രികളും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അതായത് ഇപ്പം വയസ്സായവരാണെങ്കിലും ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൻറടുത്ത് ഉണ്ട്